കല്യാൺ സിൽക്സ് ആണോ കല്യാൺ സിൽക്സ് ആണോ നമുക്ക് ഓണത്തിന് കുറച്ച് പർച്ചേസ് ചെയ്യാൻ ആണേ അപ്പം ഓഫർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഫാമിലി ഫുൾ ആയിട്ട് ഉണ്ട് ഞങ്ങൾ കാനഡയിൽ ആണേ അപ്പം നമ്മൾ ഇപ്പം ഓണത്തിന് ആയിട്ട് വന്നതാണ് അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കസിൻസ് എല്ലാ റിലേറ്റീവ് ഒക്കെ ഇവിടെ ആണേ ഉള്ളത് അപ്പം എല്ലാവർക്കും ഒന്ന് എടുത്ത് കൊടുക്കാൻ എങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത്തിയഞ്ച് പേർ ഉണ്ടാവും

ആ കൂപ്പണുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ ആണല്ലേ ആണല്ലേ ആ ആ ആ നിങ്ങൾ എത്ര മണി വരെ നൈറ്റ് ഉണ്ടാവുക നമ്മൾ എന്തായാലും വൈകുന്നേരമേ വരുള്ളൂ കാരണം എല്ലാവരും ആ ഒരു ടൈമേ എല്ലാവരും ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വരാൻ ഒക്കെയാണ് ആ എട്ട് മണി ആവുമ്പം അല്ലേ ആ നമ്മൾ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾ ഓപ്പൺ ആക്കുമല്ലോ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം കുട്ടികളും എല്ലാവരും കൂടെ വന്നിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആയിക്കോട്ടെ ആ ഓക്കെ എന്നാൽ ആ ഓക്കെ